ഇന്ത്യയിലിപ്പോൾ കായികത്തില് നല്ല ഇംപോർട്ടൻസുണ്ട് ഇപ്പൊൾ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ആണേലും അതിനു വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊൾ എന്താ പറയുക ക്രിക്കറ്റിന് കൊടുക്കുന്ന ആ ഒരു ഇംപോർട്ടൻസ് എല്ലാ ഗെയിംസിനും അങ്ങനെ വേണ്ട വിധത്തിൽ കൊടുക്കുന്നില്ല ഇന്ത്യൻ ഒളിമ്പിക്സ് കാര്യങ്ങള് കുറേ കായികതാരങ്ങൾക്ക് അവർക്ക് വേണ്ടവിധത്തിലുള്ള ബഹുമതി കൊടുക്കുന്നില്ല എന്നുതന്നെ പറയാം അവരെ വേണ്ടവിധത്തിൽ പരിഗണിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവർക്ക് വേണ്ട ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക മനസികമായിട്ട് ഉള്ള ഒരു സപ്പോർട്ടോ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തു കൊടുക്കുന്നില്ല ഇപ്പൊൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഈ അടുത്ത് ഇന്ത്യൻ ഫുട്ബോള് ടീമിന് അർജെന്റീന ആയിട്ടുള്ള ഒരു സൗഹൃദ മത്സരത്തിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഫണ്ട് പോലും നൽകാൻ ഇല്ല എന്നുപറഞ്ഞ് ആ ഓഫറ് നിരസിച്ചു കളയായിരുന്നു ഇന്ത്യൻ കായിക മേഖലയുടെ ഒരു വളർച്ചക്ക് വേണ്ടി കൂടുതൽ ഫണ്ട് നൽകുകയും കായിക തരങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന നൽകുകയും അവരെ നമ്മുടെ നാടിന്റെ അഭിമാനമായി കാണുകയും വേണം അതിനു വരും തലമുറയ്ക്ക് അതൊരു വരും തലമുറക്കൊരു മുന്നേറ്റത്തിനുള്ള പ്രചോദനമാകും